ഞാൻ നിങ്ങളുടെ സൈറ്റിൽ നിന്നും ആദ്യമായി വാങ്ങിയ പ്രൊഡെക്റ്റ് ഹെയർ സ്ട്രയിറ്റ്നറാണ് എനിക്കതിനെപ്പറ്റി പറയാനുണ്ട് വ എനിക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസായിരുന്നു അത് വള് വളരെ ക്വളിറ്റിയോട് കൂടി എനിക്ക് കുറെ സംശയങ്ങളുണ്ടാരുന്നു നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങുമ്പോൾ വളരെ നല്ല ക്വളിറ്റിയോടുകൂടെ കിട്ടുമോ നമ്മൾ നേരിട്ട് പോയി വാങ്ങുന്ന അതേ ഇതില് കിട്ടുമോ എന്നൊക്കെ പക്ഷെ വിചാരിച്ച പോലെയല്ല വളരെ നല്ലൊരു പ്രൊഡക്റ്റായിരുന്നു ഞാൻ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നല്ലരീതിയിൽ ഹെയറൊക്കെ സ്റ്റെട്രെറ്റാവാനും കാര്യങ്ങളൊക്കെ നന്നായി നടക്കുന്നുണ്ട് വളരെ വില കുറവിലും നമുക്ക് ലഭിച്ചു അത് ഇപ്പോൾ ഡെലിവറി ചാർജ് നാൽപ്പത് രൂപ മാത്രമാണ് ചാർജ് ചെയ്തത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആ പ്രൊഡക്റ്റ് റിട്ടേൺ ചെയ്യാനുമുള്ള ഓഫറുള്ളതുകൊണ്ട് മാത്രമാണ് ഞാനത് പിന്നെ ഓർഡറ് ചെയ്തത് പക്ഷെ ഇനി റിട്ടേൺ ചെയ്യേണ്ട ആവശ്യമില്ല എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണത്